അവകളെ സുഹൃത്തുക്കൾക്കും അല്ലെങ്കിൽ കുടുംബാങ്ങൾക്കോ ആർക്കെങ്കിലും കായിക ഇനത്തിൽ പരിശീലം ലഭിക്കണമെങ്കിൽ അതിനായിട്ടുള്ള ഒരു കോച്ചിൻ്റെ അടുത്തു കൊണ്ടുപോയി പിന്നെ പരിശീലനം നടത്തുകയോ ഞാൻ റെക്കമെൻ്റ് ചെയ്യാമെന്നു പറയുമ്പം എനിക്ക് പിന്നെ മൂപ്പർ ക്രിക്കറ്റിലോ അല്ലെങ്കിൽ ഫുട്ബോളിലൊക്കെ നല്ലൊരു മികച്ച മുന്നേറ്റം കാഴ്ച്ച വെച്ചവരാണ് അങ്ങനെയൊക്കെയാണ്